ആ ഇത് വെജിറ്റബിൾസിന് വേണ്ടിയിട്ടാരുന്നു കല്യാണം

എല്ലാം വേണേയ്നു എല്ലാം വേണായിരുന്നു എനിക്ക് ഈ കറിക്കുള്ളത് പിന്നെ അങ്ങനത്തെ സാമ്പാറിനുള്ളത് അതെയതെ അ അ അത് ഹോൾസെയിൽ ആയിട്ട് കിട്ടുവാ

അ അ ഓക്കേ ഓക്കേ വണ്ടി അങ്ങോട്ട് പറഞ്ഞയക്കണോ ഓക്കേ ഓക്കേ ഈ തക്കാളി ഒരു പത്ത് കിലോ വേണം ഉള്ളി ഒരു ഏഴ് കിലോ പിന്നെ പയർ ഒരു അഞ്ച് കിലോ അ അ അ വോ പിന്നെ കാരറ്റ് ഒരു പത്ത് കിലോ

ഇത് നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ

അതെയതെ വോ

എന്ന ശരി ഒൻപതാം തിയ്യതിയാ മണിക്ക്